ഹലോ ആരാണെന്നു മനസ്സിലായോ തനിക്ക് തനിക്കെന്തെങ്കിലും ഉത്തരവാദിത്ത്വമുണ്ടോ ഞാനീ സ്കൂളിൽ പ്രിൻസിപ്പളാണ് തനിക്കെന്തെങ്കിലും ഉത്തരവാദിത്ത്വമുണ്ടോ എന്ത് എന്ത് പ്രശ്നമെന്ന് ഇതു വരെയും മനസ്സിലായില്ലേ എവിടെ നിന്ന് എവിടെ തൻ്റെ ഐ ഡി കാഡെന്ന് തനിക്കത്രയ്ക്കുത്തരവാദിത്ത്വമുള്ള ഒരൈഡി കാഡെന്നുള്ളത് ഈ കോളേജിൽ ഒരൂ ഈ കോളേജ് ഈ കോളേജിലാണ് പഠിക്കുന്നതിനുള്ള ബോധമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാനോ ആ അതെനിക്കറിയത്തില്ല എൻറ്റെ ഇതീത്തനുള്ളൂ തൻ്റെ താനിതുവരെ തൻ്റെ ഐ ഡി കാഡ് മിസ്സിങ്ങാണെന്നുള്ള കാര്യം പോലും താൻ മറന്നാണല്ലേ ഇരിക്കുന്നത് പിന്നെന്തിനാടോ താനൊക്കെ കോളേജിൽ വരുന്നത് കേട്ടില്ല എന്ന് അപ്പോൾ താനെന്ന് ആ താനപ്പോൾ എന്തു കൊണ്ടാണീ കോളേജിൽ വരുന്നത് താൻ പഠിക്കാൻ തന്നാണോ ഈ കോളേജിലേക്കു വരുന്നത് താനെന്നിട്ട് വന്നിട്ട് എന്തോ പഠിച്ച് താനേത് ഡിപ്പാട്മെൻ്റിലാണ് പഠിക്കുന്നത് തൻ്റെ തൻ്റെ ഡിപ്പാട്മെൻറ്റ് ഹെഡ്ഡാരാണ് ആരാണെന്ന് പറ ആരാണെങ്കിലും എനിക്കറിയണ്ടേ എനിക്കതറിയാനുള്ള ഉത്തരവാദിത്ത്വമില്ലെ ആരാണെന്നുള്ളത് നാളേ നാളെ വരുമ്പോൾ നാളെ വരുമ്പോൾ തൻ്റെ ഫാദറിനെയും മദറിനെയും നാളെ കോളേജിൽ കൊണ്ട് വന്ന് അവരുടെ കയ്യിൽ നിന്ന് അപ്പോയ്ൻമെൻറ്റ് ലെറ്റർ മേടിച്ചിട്ടു വേണം കോളേജിൽ വരാൻ അല്ലെങ്കിൽ തന്നെ ഈ കോളേജിൽ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യുന്നതാണ് അത് എനിക്കറിയേണ്ട അത് എനിക്കറിയേണ്ട കാര്യമില്ലാ ഈ കോളേജിലതിൻ്റേതായ റെപ്പ്യൂട്ടേഷനുണ്ട് അതനുസരിച്ച് വേണം താൻ അനുസരിക്കുകയാണെങ്കിൽ കോളേജിൽ നിൽക്കാം അല്ലെങ്കിൽ തന്ന് പിന്നെ എന്തിനാടോ താനൊക്കെ പഠിക്കാൻ വരുന്നത് താനൊക്കെ എന്തോ കാണാനാണ് ഇവിടേക്ക് വരുന്നത്

എനിക്കതൊന്നും കേൾക്കണ്ട കാര്യവും എനി എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല ഞാൻ ഈ സ്കൂളിലെ ഒരു പ്രിൻസിപ്പളാണ് അപ്പം എനിക്ക് എൻറ്റേതായിട്ടുള്ള കാര്യം ചെയ്തേ പറ്റത്തുള്ളു താനൊക്കെ എന്തോ ആലോചിച്ചതു കൊണ്ട് നടക്കുന്നത് ഒരൈഡി കാഡ് മിസ്സാകുകയെന്നു വെച്ചാൽ അത്ര നല്ല കാര്യമായിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് പറയൂ ഏ അത് തരാൻ പറ്റത്തില്ല താങ്കൾക്ക് ഐ ഡി കാഡ് വേണമെന്നുണ്ടെങ്കിൽ നാളെ അച്ഛനെയോ അമ്മയോ അല്ലാതെ നാളെ കൊണ്ടു വന്നിട്ട് വേണം തനിക്ക് ഐ ഡി കാർഡ് തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തനിക്ക് ഐ ഡി കാർഡ് തരത്തില്ല ആ ഓ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ